ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിലനിൽപ്പ് ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നു പറയുന്ന പൊതുമേഖലാ ബാങ്കാണ് പിന്നെ ഏതാനും കിലോ മീറ്ററുകൾക്കപ്പുറം ടൗൺ ഏരിയയിലേക്കു ചെന്നാൽ മിക്കവാറും ബാങ്കുകളുടെ ശാഖകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വായ്പ്പയുമായി ബന്ധപ്പെട്ട ഒത്തിരി ഏറെ കാര്യങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല എങ്കിലും ഒരിക്കൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു വായ്പക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അത്ര നല്ലയൊരു സമീപനം എനിക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം ഞാൻ ഒരു നെൽകർഷകനാണ് അപ്പം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ആവശ്യമില്ലാത്ത ഒരു രീതിയാണ് ഇന്ന് സർക്കാർ ഏജൻസികളും കർഷകരോടു കാണിക്കുന്നതു കാരണം നാല് മാസത്തോളം അതിലേറെ അദ്ധ്വാനിച്ചു നെല്ലുത്പാദിപ്പിച്ച് ഇപ്പോൾ സപ്ലൈക്കോ വഴി നെല്ല് വിറ്റ് കഴിഞ്ഞാൽ നേരിട്ട് സപ്ലൈക്കോ നമുക്ക് പണം തരുന്നില്ല സർക്കാരതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അവിടെ നമ്മൾ കൊടുത്ത നെല്ലിൻ്റെ വില തന്നെ നമുക്ക് വായ്പയായി ചില പൊതുമേഖല ബാങ്കുകളും തരുന്ന രീതിയാണല്ലോ അതിനു വേണ്ടി ബാങ്കിൻ്റെ ലോണെന്ന നിലയിൽ ഒത്തിരിയേറെ പേപ്പറുകൾ നമ്മളെ കൊണ്ട് ഒപ്പിടിയിക്കുന്നു സർക്കാർ പിന്നീട് ഈ പണം വായ്പ പലിശ സഹിതം കൊടുക്കും എന്നാണ് ധാരണയുള്ളത് അപ്പം ഇങ്ങനെ പൊതുമേഖലയിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ കാല താമസത്തിലാണ് ഈ ബാങ്കുകളിൽ നിന്നും പണം നെല്ലിൻ്റെ വില ലഭിക്കുന്നതെങ്കിലും അതു പിന്നീട് നമ്മുടെ രേഖകളിൽ വായ്പയായിട്ടു തുടരുന്നു അതു നമ്മുടെ സിബിൽ സ്കോറിനെ തന്നെ ബാധിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം ഞാൻ ഒരിക്കലീ വീടിൻ്റെ പണിക്കു വേണ്ടി വായ്പക്കപേക്ഷിച്ചപ്പോൾ അതു ലഭിക്കുന്നതിന് ഒത്തിരിയേറെ താമസമുണ്ടായി അതു വേറെന്തോ ഏജൻസി വഴിയാണ് ബാ ലോണുകളെ സംബന്ധിച്ചുള്ള ആ പരിശോധനകളൊക്കെ പൊതുമേഖലാ ബാങ്കുകൾ നടത്തുന്നത് അപ്പങ്ങനെ ഏജൻസികളിൽ നിന്ന് ഒരിക്കൽ ചോദിച്ച് എനിക്കെന്തെങ്കിലും വായ്പയുണ്ടോ എൻ്റെ അറിവിൽ ഞാൻ വായ്പകളൊന്നും ഒരു സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആളല്ല പക്ഷേ അവർ പിന്നെ കുറച്ച് ദിവസങ്ങൾക്കു ശേഷം കണ്ടു പിടിച്ചെന്നോടു പറഞ്ഞൂ നിങ്ങൾ നെല്ലിൻ്റെ വിലയായിട്ടു പണം വാങ്ങിയിട്ടുണ്ടത് ലോണാണ് അതുകൊണ്ട് ലോൺ തരാൻ ഞങ്ങൾക്കു സാധിക്കുകയില്ല അപ്പം ഭവന നിർമ്മാണത്തിനു വേണ്ടി ഒരു വായ്പക്കപേക്ഷിച്ചപ്പോൾ ഇല്ലാത്തതൊരു എന്നു പറഞ്ഞാൽ വായ്പ അല്ലാത്ത ഒരു ഒരു ഇടപാടിൻ്റെ പേരിൽ വായ്പ എന്ന നിലയിൽ അത് നിഷേധിക്കുന്നൊരു സാഹചര്യം എനിക്കുണ്ടായി ഇതു വാസ്തവത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നേരിട്ടു നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ലോണെടുക്കാതെ സർക്കാരുമായിട്ടുള്ള ധാരണപ്രകാരം ലോൺ പേപ്പറുകൾ ഒപ്പിടിയിച്ചിട്ട് അതിനെ വായ്പയായിട്ടു നിലനിർത്തി നമുക്ക് പണം ലഭിക്കാനുള്ള അല്ലെങ്കിൽ മറ്റൊരു വായ്പ ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇത് എൻ്റെ മാത്രം അനുഭവമല്ല ഒത്തിരിയേറെ ആളുകൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതു വലിയ വിഷയമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചിതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഭക്ഷണോത്പാദി